എൻ്റെ ജന്മനാട് തൃശ്ശൂരാണ് പക്ഷേ ഞാൻ പഠിച്ചതും വളർന്നതും വിദേശത്താണ് പക്ഷേ പത്താം ക്ലാസ് മാ വരെയാണ് ഞാൻ പുറത്ത് പഠിച്ചിട്ടുള്ളു പ്ലസ് വൺ പ്ലസ് ടുവിനായി ഞാൻ നാട്ടിൽ തൃശ്ശൂരിൽ തന്നെയാണ് തിരിച്ചുവന്നത് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയും ഞാനിപ്പോൾ തൃശ്ശൂർ തന്നെയാണ് ചെയ്യുന്നത് എനിക്കീ നാട്ടിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നു പറഞ്ഞാൽ ഇവിടത്തെ പൂരങ്ങളാണ് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ എന്നു പറഞ്ഞാൽ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ തൃശ്ശൂർ പൂരം എന്നുപറഞ്ഞാൽ വളരെ ഫെയ്മസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് പല ജില്ലകളിലിൽ നിന്നും തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾകാരുണ്ട് വളരെയധികം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം എനിക്ക് ഇഷ്ടമുള്ള ഒരു എൻ്റേതായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് തൃശ്ശൂർ പൂരം കൂട്ടുകാരായും ബന്ധുകാരായും പൂരത്തിനുപോയി അടിച്ചുപൊളിക്കുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണ് വളരെ തിക്കി നിറഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ പോലും ആനകളും ചെണ്ടയും എല്ലാറ്റിൻറ്റെയും ഇടയിൽനിന്ന് അത് പൂരം എക്സ്പീരിയൻസ് ചെയ്യുക എന്നു പറയുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണ് രാവിലെ തൊട്ട് പിറ്റേ ദിവസം പുലർച്ചവരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് തൃശ്ശൂർപൂരം അതിൽ കുടമാറ്റങ്ങളും വെടികെട്ടും എന്നിവ പല പല കാര്യങ്ങളും ഈ തൃശ്ശൂർ പൂരത്തിന് ഉണ്ടാകാറുണ്ട് പല പല ജില്ലയിൽ നിന്നും വളരെയധികം തിരക്ക് കൂടിയ ഒരു സ്ഥലത്ത് കുറെയധികം ആനകളും ചെണ്ടകളും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ചെറിയ പ്രായത്തിൽ പുറത്ത് പഠിച്ചു വളർന്ന കുട്ടി എന്നസ്ഥിതിയിൽ ഒരുപാട് പേർക്കുള്ള ഒരു എക്സ്പെക്ടേഷനാണ് നമ്മുടെ നാട് ഇഷ്ടമല്ലാത്ത നാട്ടിലത്തെ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്ത പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് എനിക്ക് പുറത്തു പോയേനെക്കാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ നാട്ടിൽ നിൽക്കണതാണ് തൃശ്ശൂർ നിൽക്കണതാണ് കൂട്ടുകാരെയും ഫാമിലി മെമ്പേഴ്സും ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്യാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നാൽ തന്നെ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ തൃശ്ശൂർ പൂരം തന്നെയല്ലാണ്ട് തൃശ്ശൂർ എന്ന ജില്ലയിൽ പൂരങ്ങൾ മാത്രം വളരെയധികം ആഘോഷിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ഇഷ്ടം പോലെ പൂരങ്ങൾ നമ്മുടെ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ പൂരങ്ങൾ മാത്രം നടത്തുന്ന ചില പ്രത്യേക മാസങ്ങൾ പോലുമുണ്ട് അപ്പോൾ പൂരങ്ങൾ പോയി എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തൃശ്ശൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിക്കാരും ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ഈ പറഞ്ഞപോലെ പൂരത്തിന് പോകുന്നതു തന്നെയാണ് അതുപോലെതന്നെ ഇവിടെ കിട്ടുന്ന അടിപൊളി ഫുഡ് സദ്യ തൃശ്ശൂരിലുള്ള സദ്യ വളരെ അധികം എന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം നല്ല ഫുഡ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കഴിക്കാം നല്ല അടിപൊളി അടിപൊളി ഫുഡും അതേപോലെതന്നെ ഈ ഡൈവേഴ്സ് കൾച്ചർ നമുക്ക് തൃശ്ശൂരിൽ കാണാം പല പല മതങ്ങളുടെ സ്പെഷൽ സ്പെഷൽ പരിപാടികൾ നമ്മുടെ തൃശ്ശൂരിൽ ഒരുപാട് അധികം നമുക്കറിയാം ഇപ്പോൾ ചാവക്കാട് നേർച്ച അങ്ങനെ അങ്ങനെ പല പല പരിപാടികളും ആഘോഷങ്ങളും വളരെ അടിപൊളിയായിട്ടാണ് തൃശ്ശൂരിൽ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടു തന്നെ അങ്ങനത്തെ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് തൃശ്ശൂരിലാണ് വളരെയിഷ്ടം എൻ്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്